ആ ഓക്കെ പറഞ്ഞോളൂ ആ ഓക്കെ നമുക്ക് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും അവൈലബിൾ ആണ് സാറെ എങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ വേണ്ടി വരുമോ ആ ബൾക്ക് ആയിട്ട് വേണം അല്ലെ ആ സാറ് എന്നത്തേക്കാണ് കളക്ട് ചെയ്യാൻ വരിക ഇത് ആ ഈ വീക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും നമുക്ക് വേണമെങ്കിൽ എത്തിച്ചുതരാം സാറ് ബൾക്ക് ആയിട്ട് നമ്മള് എത്തിച്ചേരണോ അതോ വന്ന് കളക്ട് ചെയ്തോളുമോ ആ ഓക്കെ റേറ്റ് ഇപ്പോൾ ആ ഓ ബൾക്ക് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഇട്ട് ചെയ്തേരാൻ പറ്റും സാർ അപ്പം സാറിന് ഏതൊക്കെ ഐറ്റംസാണ് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ അതിൻ്റ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയുവാണെങ്കിൽ ഞാൻ കറക്റ്റ് അത് ഒക്കെ ഏതൊക്കെ ഉണ്ട് അവൈലബിൾ ആയിട്ട് ഉള്ളത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് അല്ലെ അതോ ഈ വീക്ക് വീക്ക് ലാസ്റ്റ് ആണോ വേണ്ടത് ആ ഓക്കെ സാറ് കോഴിക്കോട് അല്ലെ സ്ഥലം ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഉള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഒര് ലോഡ് പോയിട്ടെ ഉള്ളൂ അപ്പോൾ ബാക്കി ആയത് നമുക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പത്തേക്ക് ഞാൻ സെറ്റ് ചെയ്യാം അറേഞ്ച് ചെയ്യാം പിന്നെ വണ്ടി എന്തെങ്കിലും വേണമെങ്കിൽ സാറ് കുറച്ച് നേരത്തെ പറയണം നമുക്ക് ഇത് ഹ്യൂജ് ആയിട്ട് ഉള്ളത് കൊണ്ട് ഏകദേശം ഒര് സൂപ്പർ മാർക്കറ്റിലേക്ക് ഒര് വൺ വീക്കിലേക്ക് ഉള്ള പോരെ ആ ഓക്കെ അപ്പം അതിന് ആ ഓക്കെ ആ ഓ ഫ്രഷ് ഐറ്റംസെ ഉള്ളൂ സാർ നമ്മള് സാറ് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തോട്ടം കണ്ടിട്ട് ഇത് ഇൻ്ററസ്റ്റ് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞാൽ മതി അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഞാന് ഓൾമോസ്റ്റ് ഇപ്പം ഈ ഒര് വീക്ക് ഞാൻ ചിലപ്പം ഇവിടെ ഉണ്ടാവില്ല ഞാൻ നെക്സ്റ്റ് വീക്കെ എത്തൂള്ളൂ അപ്പത്തേക്ക് ഞാൻ സാറിന് വേണ്ട ഇത് ലിസ്റ്റിൽ ഉള്ളതൊക്കെ അറേഞ്ച് ചെയ്തേക്കാം പിന്നെ പണിക്കാര് ഉണ്ടാവും ഞാൻ അവരോട് എല്ലാം പറഞ്ഞ് ഡീൽ ആക്കി വെച്ചേക്കാം പിന്നെ സാർ എന്തേലും അഡ്വാൻസ് ആയിട്ട് എന്തേലും പേയ്മെൻറ്റ് ചെയ്യണ്ട വരും ഞാൻ ഗൂഗിൾപേ എത്രയാ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ലിസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം അപ്പം അതിന് അനുസരിച്ച് സാർ ഒന്ന് പേയ്മെൻറ്റ് ചെയ്യുവാണെ നല്ല ആയിരിക്കും കേട്ടോ ആ പേ ആ ഓക്കെ ഞാൻ എന്തായാലും നോക്കിയിട്ട് സാറോ ആ ഓക്കെ ഓക്കെ ആ സാറിന് ഞാൻ ഇപ്പം ഓൺലൈനിൻ്റ ഒക്കെ ലിസ്റ്റ് കറക്റ്റ് അയച്ച് തരാം എന്നിട്ട് സാർ അതിനകത്ത് വേണ്ട ഐറ്റംസ് ഒക്കെ ഏതൊക്കെയാന്ന് വെച്ച് പറയുവാണെങ്കിൽ ഞാന് അതിനനുസരിച്ച് ചെയ്ത് തരാം